ഹലോ ഇത് പാൻ കാഡ് വെരിഫിക്കേഷൻ ഓഫീസല്ലേ എൻ്റെ പേര് ഗംഗ ഞാനൊരു സാമ്പത്തിക ഇടപാടിനായി അടിയന്തിരമായി ഒരു പാൻ കാഡ് എനിക്ക് ആവശ്യമാണ് ഞാൻ ഇതിന് മുൻപേ ഞാൻ പാൻ കാഡിന് അപേക്ഷിച്ചിട്ടുണ്ട് നിലവിൽ അതിൻ്റെ നില സ്ഥിതീകരിക്കാൻ ഞാനാഗ്രഹിക്കുന്നു പാൻ കാഡ് സപ്പോർട്ട് ടീമെന്ന നിലയിൽ എനിക്കാവശ്യമുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറാൻ തരുമെന്ന് നിങ്ങൾക്ക് കൈമാറാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ രസീത് നമ്പറ് ഇരുപത്തി എട്ട് പന്ത്രണ്ട് ഇരുപത്തി ഒന്നാണ് ജനന തീയതി ഇരുപത്തി നാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എൻ്റെ ഈ ഈ നിർദ്ദേശം എൻ്റെ ഈ വിവരങ്ങൾ വിവരങ്ങളുപയോഗിച്ച് എന്റെ അപേക്ഷയുടെ നില പരിശോധിക്കാൻ ഞാൻ അഭ്യർഥിക്കുന്നു